എനിക്കിഷ്ടപ്പെട്ട മത്സ്യങ്ങളെന്നു വച്ചാൽ എനിക്ക് മത്തി ഇഷ്ടമാണ് മത്തി ചെറിയ മത്തിയില്ലേ ഈ മഴക്കാലങ്ങളിലൊക്കെ അതു കഴിഞ്ഞപാടൊക്കെ ചെറിയ കുഞ്ഞി കുഞ്ഞി മത്തി വരുമല്ലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അതുപോലെ കൊഞ്ച് ഞണ്ട് കൂന്തൽ ഇങ്ങനെ എന്നിങ്ങനെയുള്ള മത്സ്യങ്ങൾ എനിക്ക് കരിമീൻ ഭയങ്കര ഇഷ്ടമാണ് കരിമീൻ പൊള്ളിച്ചത് അതുപോലെ കരിമീൻ ഇലയിലിട്ട് വാട്ടിയിട്ട് മസാല ആക്കിയിട്ട് ഒരു ആവി കൊള്ളിക്കുന്ന ഒരു രീതി ഉണ്ട് അതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കഴിക്കാൻ അതുപോലെ സാധാരണ ആൾക്കാർക്കെന്നുവച്ചാൽ എൻ്റെ വീട്ടിലുള്ള എല്ലാം എൻ്റെ ഹസ്ബൻ്റിനൊക്കെ ഇഷ്ടമുള്ളത് എന്നുവച്ചാൽ കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ് കൊഞ്ച് കൂന്തൽ അതുപോലെ കല്ലുമ്മക്കായ ഇതൊക്കെ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ എൻ്റെ മോൾക്കും എൻ്റെ മോൾക്കും കൊഞ്ച് ഭയങ്കര ഇഷ്ടമാണ് എൻ്റെ വീട്ടിൽ കുടുതലും കൊഞ്ചാണ് കുടുതൽ വാങ്ങാറും കഴിക്കാറും ഒക്കെ അതുപോലേ അയില വച്ചിട്ട് അയിലപ്പത്തൽ അതൊക്കെ അടിപൊളിയാണ് അതുപോലെ കൂടുതൽ മീനുകളും എനിക്ക് വറത്തു കഴിക്കുന്നതാണ് ഇഷ്ടം കുടുതലും വറുത്ത് കഴിക്കുന്നത് ഒരു പ്രത്യേക ടേസ്റ്റാണ് ചിലർ പറയും അധികം വേവ് അധികം വറുക്കാതെ വറവ് കുറഞ്ഞ രീതിയിൽ കഴിക്കണം പക്ഷെ എനിക്ക് ആ നല്ല വറുത്തിട്ട് കഴിക്കുന്നതാണ് ഇഷ്ടം വീട്ടിലുള്ളവർക്കും അതുപോലെ